ഹലോ ഇത് ഒലീവ കാർസ് ആൻഡ് ട്രാവൽസ് അല്ലെ സർ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ട് ഒന്ന് ഒന്നര മണിക്കൂറായി ഇതുവരെ എത്തിയിട്ടില്ല അതെ അതെ ഞാൻ ഒന്നര മണിക്കൂർ മുമ്പാണ് ബുക്ക് ചെയ്തത് ഞാനൊരു പതിനൊന്നു മണിയായപ്പോൾ ബുക്ക് ചെയ്തതാണ് എനിക്കൊരു പതിനൊന്നരക്കാണ് ടൈം വേണ്ടേ എന്നുവരെ ഞാൻ പറഞ്ഞായിരുന്നു അത്രക്ക് അർജൻറ്റാന്നു ഞാൻ വരെ പറഞ്ഞിട്ടും ഇതുവരെ വണ്ടിയെത്തിയിട്ടില്ല ഇപ്പൊൾ പന്ത്രണ്ടരയാവാറായി സർ എന്താണ് ഇത്രക്കും നിങ്ങളൊരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് പെരുമാറുന്നത് നിങ്ങള് നിങ്ങളുടേതായ ഇങ്ങനെയൊരു പൊസിഷൻ നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു ഒരു ഇത് തുടങ്ങി നിങ്ങളിങ്ങനൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രക്ക് ഉത്തരവാദിത്തം ഇല്ലാതെ യൂസ്ലെസ്സ് ആയിട്ട് പെരുമാറരുത് സർ നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങളെല്ലാരും ഇങ്ങനെ ഓരോ ബുക്കിംഗ് ഒക്കെയായിട്ട് വരുന്നത് അപ്പൊൾ നിങ്ങളിങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് പെരുമാറിയാൽ അത് ഞങ്ങളേയും കൂടെയാണ് ബാധിക്കുന്നത് സർ നിങ്ങളിങ്ങനെയൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആലോചിക്കണം സർ ഒരുപാട് പേര് നിങ്ങളെ വിശ്വസിച്ചു മാത്രമാണ് ഓരോ ഓട്ടോയും ബുക്കിംഗ് എന്നും പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ൾ നിങ്ങളിങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഒരു കൃത്യനിഷ്ഠത ഇല്ലാണ്ട് പോയാൽ എങ്ങനാണ് സർ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ഇനി അതെ സർ ഇതെത്ര നേരമായി എന്നു വിചാരിച്ചാണ് ഒന്നര മണിക്കൂറ് കഴിഞ്ഞു എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുവരെയും എനിക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ട വന്നു നിങ്ങൾക്ക് താമസമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാൻ വേറെ ഒരു ക്യാബ് ആണേലും ബുക്ക് ചെയ്യുമല്ലൊ അല്ലെങ്കിൽ വേറെ എന്ത് മാർഗ്ഗേനേം ഞാൻ എത്തിയേനേ നിങ്ങളിതിപ്പോൾ വരും ഇപ്പോവരും എന്നു പറഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞു എത്ര നേരായി കാത്തിരിക്കുന്നു ഇതുവരെ എത്തിയിട്ടില്ല നിങ്ങളിപ്പോൾ എവിടാ ഉള്ളതെന്നെകിലും ഒന്ന് പറയുമൊ മാവിലാന്തോട് ജംഗ്ഷനിൽ അല്ലേ എൻറ്റെ വീട് അവിടുന്നൊരു ഒരു മുക്കാൽ മണിക്കൂർ കൂടി പോയാലേ എൻറ്റെ വീട്ടിലേക്ക് ഉള്ളു ഇനി നിങ്ങളെത്താൻ ഒരുപാട് ലേറ്റ് ആകും എവിടെയാ ആ കുരിശ്പള്ളിൻറ്റെ അവിടെയായിട്ടാണോ അവിടുന്നൊരു ഷോർട്ട് ഉണ്ട് അത് കേറി ഇങ്ങോട്ടേക്ക് ഒരു അര മണിക്കൂറിനുള്ളിലെങ്കിലും എത്താം ഒന്നു പെട്ടന്നു എത്താൻ നോക്ക് ചേട്ടാ ചെന്നിട്ടൊരു മീറ്റിംഗ് ഒക്കെയുള്ളതാണ് ഒരു ഒരു ഹാഫ് ആൻ ഹവറിൽ എത്തുവോ ഓക്കെ ഇനിയെങ്കിലും കൃത്യനിഷ്ഠത പാലിക്കണേ ഒരു ഒരു മണി ആകുമ്പോൾ എങ്കിലും എത്തിയില്ലെങ്കിൽ ഞാനിത് ക്യാൻസൽ ചെയ്യും ഓക്കെ താങ്ക്യൂ